ഹലോ എന്ത് എടാ ആ എന്തിനാണ് എടാ എങ്ങനെ റിസോർട്ട് പോലെ ആണോ നീ ഉദ്ദേശിക്കുന്നത് വീട് ഈ ഹോം സ്റ്റേ പോലെ അങ്ങനെ എന്തെങ്കിലും ആണോ ആ ഹാ ഹാ ഓക്കേ ഓക്കേ ആ ഓക്കേ ഓക്കേ

ഓക്കേ അത് ഇപ്പോൾ എനിക്ക് കറക്ട് ആയിട്ട് വലിയ പരിചയം ഒന്നുമില്ല എന്നാലും ഞാൻ ഒന്ന് അന്വേഷിച്ച് നോക്കിയിട്ട് പറഞ്ഞാൽ മതിയോ നിന്നോട് ആ ഓക്കേ ഓക്കേ നമുക്ക് എന്താണ് പറയുക വാർക്ക വീടൊക്കെയാണല്ലോ അല്ലേ ആ ഹാ ഹാ ആ മീൻസ് പഴയ രീതിയിൽ ഫുൾ വുഡ് ഉപയോഗിച്ചിട്ടൊക്കെ ഉള്ള ടൈപ്പ് അല്ലേ വുഡ് ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള ടൈപ്പ് ആണോ ആ ഹാ ഹാ ആ ഓക്കേ മനസ്സിലായി എടാ

ഒരു മാസത്തേക്കാണോ ആ അങ്ങനത്തേതിന് ഇപ്പോൾ പെയ്മെന്റ് കാര്യങ്ങളൊക്കെ എങ്ങനെ ആണ് എന്ന് നമുക്ക് അറിയത്തില്ല അതൊക്കെ നോക്കിയിട്ട് ചെയ്ത് തന്നാ പോരേ ആ

ഞാൻ നോക്കട്ടെ ഇതൊന്ന് അന്വേഷിച്ചിട്ട് എവിടെ എങ്കിലും ഉണ്ടോന്ന് അറിഞ്ഞ് കഴിഞ്ഞിട്ട് നിന്നെ വിളിക്കാം ആ ഇതിപ്പോൾ ഇപ്പോൾ നമുക്ക് നിയർ ഇപ്പോൾ എവിടെയാണ് ഉള്ളത് എന്ന് നോക്കേണ്ടേ അത്യാവശ്യം സിനറിയും കാര്യങ്ങളും ഉള്ളത് തന്നെ വേണ്ടേ അപ്പോൾ അത് ഓക്കേ ഓക്കേ

ആ ഹാ ഹാ ആ ഞാൻ എന്തായാലും നോക്കാം നോക്കിയിട്ട് ഞാൻ പറയാം ഇവിടെ അടുത്ത് ഏതെങ്കിലും ആദ്യം അടുത്തുള്ളത് ഒക്കെ അനേഷിച്ച് നോക്കാം ആദ്യം നോക്കിയിട്ട് പറയാം ആ നോക്കാം ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു